നീന്തൽ വിവിധ പ്രയോജനങ്ങൾ മനുഷ്യ ശരീരത്തിൽ ഉണ്ടാക്കുന്നു നീന്തൽ മുഴുവൻ ശരീര വ്യായാമത്തിന് പേരുകേട്ടതാണ് ശരീര ഭാരം നിലനിർത്താനും പേശിയുടെ ശക്തി വർദ്ധിപ്പിക്കാനും സഹിഷ്ണത മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു നീന്തൽ ശ്വസന നിയന്ത്രണത്തിനു സഹായകമാണ് ഹൃദയമിടിപ്പ് വർദ്ധിപ്പിക്കുകയും കൂടുതൽ ഓക്സിജൻ ഉപഭോഗം ചെയ്യാൻ ശരീരത്തെ സഹായിക്കുകയും ചെയ്യുന്നു ഹൃദയ ഫിറ്റ്നസ്സിന് സഹായിക്കുന്നു നീന്തുമ്പോഴും ശ്വാസം പിടിച്ചുവച്ച് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ശ്വാസകോശത്തെ വലുതാക്കാൻ സഹായിക്കുകയും ശ്വസനത്തിന് കാര്യക്ഷമമാക്കുകയും ചെയ്യുന്നു കാർഡിയോ പൾമിനറി സിസ്റ്റം മെച്ചപ്പെടുത്തുന്നു വർദ്ധിച്ച ശാരീരീരിക പ്രവർത്തനത്തോട് പ്രതികരിക്കുന്നു ഇത് ശ്വസന നിയന്ത്രണത്തിലൂടെ ശ്വാസോച്ഛാസം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു